ഹലോ ആര്യ റെസ്റ്ററെൻറ്റല്ലേ ഞാൻ ഒരു മണിക്കൂര് മുമ്പേ ഒരു ഓർഡർ കൊടുത്തിരുന്നെ എത്സമ്മയാണ് ഞാന് ആനിക്കാട്ടുനിന്ന് ഒരു ഓർഡര് പറഞ്ഞിരുന്നെ ദോശയാണ് ഞാൻ പറഞ്ഞിരുന്നതെ അപ്പോള് സാമ്പാറും ദോശയുമായിരുന്നു ചോദിച്ചിരുന്നത് എനിക്ക് അതിൻ്റെ കൂട്ടത്തില് ചമ്മന്തി ചട്ട്ണി വേണമായിരുന്നേ ചട്ട്ണീം പിന്നെ രണ്ട് വടയും കൂടെ വേണമായിരുന്നേ അതും കൂടെ ചേർത്തിട്ട് സപ്ലൈയ്യാൻ പറ്റുമോ പിന്നെ ആ തെ മുമ്പെ എനിക്ക് ഓർഡർ നമ്പർ തന്നതെ നാല് അഞ്ച് മൂന്ന് രണ്ട് ആയിരുന്നെ അപ്പോള് ആഹ് നേരത്തെ പറഞ്ഞ ആ ദോശയുടെ കൂടെ ആ ഓർഡറിൻറ്റെ കൂടെ ഇതുംകൂടെ ചേർത്ത് സപ്ലൈയ്യാൻ അറിയ പിന്നെ സപ്ലൈ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെ പിന്നെ നമ്മുടെ അഡ്രസ്സ് ആനിക്കാട് പി ഒ മല്ലപ്പള്ളിയാണെ വാലക്കുഴി ഹൗസ് അപ്പോള് പെയ്മെന്റ് ഗൂഗ്ൾ പേ ചെയ്യണോ നേർത്തേന്റ്റ കൂട്ടത്തില് ഇ ഇപ്പഴത്തേ എമൗണ്ട് എത്രയാണെന്ന് ഒന്ന് പറയാണെങ്കില് അത് ഗൂഗ്ൾ പേ ചെയ്തേക്കാര്ന്നെ താങ്ക് യു